അങ്ങനെ പാചക ക്ലാസ്സുകളിലൊന്നും ഇതുവരെ അങ്ങനെയൊന്നും പഠിച്ചിട്ടോ സംബന്ധിച്ചിട്ടോ ഒന്നും ഇല്ല അമ്മ പഠിപ്പിച്ചു തന്നതേയുള്ളൂ അമ്മയും മറ്റു ബന്ധുക്കളും അയൽവാസികളും കൂട്ടുകാരും ഒക്കെ പറഞ്ഞ് ഓരോ വിഭവങ്ങളും പരീക്ഷിച്ചു നോക്കിയും അല്ലാതെയും സ്വന്തമായിട്ട് പരീക്ഷിച്ചു അങ്ങനെയൊക്കെയാണ് പാചകം ചെയ്യുന്നത് അതിൽ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടങ്ങനെ ക്ലാസ്സ് പോയിട്ടൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല പിന്നെ ടി വിയിലും അങ്ങനെയെന്തെങ്കിലും പിന്നെ യൂട്യൂബ് അതിലൊക്കെ വെറൈറ്റി ആയിട്ടെന്തെങ്കിലും കാണുമ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടും അങ്ങനെയത് പഠിച്ചിട്ടൊക്കെയുള്ളൂ അല്ലാതെ ക്ലാസ്സിലൊന്നും ഇരുന്നിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല കൂടുതലും അമ്മ പറഞ്ഞു തന്നിട്ടുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നു ചോദിച്ചാൽ വേറെ സ്ഥലങ്ങളിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വെറൈറ്റി ഹോട്ടലിലെല്ലാം പോയിട്ട് നമ്മൾ കേൾക്കാത്ത പേരിലുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ പറയുമ്പോൾ അതെന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു നോക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ പിന്നതു പഠിച്ച് ചെയ്യണം എന്നാണ് ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല അതുവരെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ പഠിച്ചതെല്ലാം താല്പര്യമുള്ളത് ഈ ന്യൂഡിൽസിൻ്റെ ഒക്കെ വിഭവങ്ങളൊക്കെ കാണുമ്പോൾ ചിക്കൻ വച്ചിട്ട് അല്ലാതെയോ ഉള്ളതോ ബസുമതി റൈസ് വച്ചിട്ടുള്ളതോ അതൊക്കെ ചെയ്തു നോക്കണം എന്നൊക്കെയുണ്ട് പഠിക്കണം എന്നൊക്കെയുണ്ട് ചൈനീസ് വിഭവങ്ങളൊക്കെയുണ്ടല്ലോ അതൊക്കെ അല്ലാതെ ഇന്നത് പഠിച്ച് ചെയ്യണം എന്നൊന്നും ഇതുവരെ തോന്നിയിട്ടൊന്നും അല്ലാതെ പക്ഷേ കഴിക്കണം എന്നോ അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് അറിയാത്ത ടേസ്റ്റുകളൊക്കെ ഒന്നു പരീക്ഷിച്ചു നോക്കണം എന്ന് ഈ പനീറൊക്കെ വച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതൊക്കെ അതിൻ്റെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തു നോക്കണം എന്നുണ്ട് അതിൽനിന്ന് ഇത് പഠിക്കണം എന്നൊന്നും തോന്നിയിട്ടില്ല